നമ്മുടെ ഈ ലോകം ഓരോ ദിവസം തോറും പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പല രീതിയിൽ ആണ് പരിണമിച്ച് കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളതാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്നു പറയുന്നത് ഇപ്പോൾ ഒരു ഇരുപത് കൊല്ലം മുൻപെ ഇതുപോലത്തെ മൊബൈൽ ഫോണെന്ന് പറയുന്ന ഒരു എലക്ട്രോണിക് ഉപകരണം നമ്മുടെ കൈവശം ഉണ്ടാകുമെന്നോ അതിലൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ ആരും വിചാരിച്ചതല്ല അപ്പോൾ സാങ്കേതിക വിദ്യയുടെ വളർച്ച ലോകത്തിന്റെ പരിണാമത്തെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ്